നമ്മളെ പരമ്പരാഗത നീന്തലും പ്രൊഫഷണൽ നീന്തലും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് പരമ്പരാഗതമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പേരുകളിൽ തന്നെ നമ്മളെ സാധാ നീന്തലും മറ്റേതിൽ പറയുമ്പോൾ ഓരോരോ രീതികളുണ്ട് ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ്ങുണ്ട് പിന്നെ ബാക്ക് സ്ട്രോക്ക് ഫ്രണ്ട് സ്ട്രോക്ക് അങ്ങനെ ഓരോ ടൈപ്പ് അതിൽ അവർക്ക് പ്രൊഫഷണലായിട്ട് നീന്തുന്ന സമയത്ത് ഓരോന്നിനും ഇപ്പോൾ ഒരു മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെന്ന് പറയുമ്പോൾ ഓരോ ടൈപ്പിൽ നീന്തുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് മാർക്കും കാര്യങ്ങളുമൊക്കെയുണ്ട് മറ്റേ സാധായെന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കിനും കാര്യങ്ങൾക്കും അല്ല അത്യാവശ്യം നീന്തിക്കുളിക്കാനും അഥവാ പുഴയിൽ കടക്കാനോ പുഴ കടക്കാനോ അല്ലെങ്കിൽ പുഴയിൽ പെട്ടാൽ നീന്തൽ പഠിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ സാധാരണ ആൾക്കാർ നീന്തണതും അത് പ്രാക്ടീസ് ചെയ്യുന്നതും അപ്പോൾ അവർക്കെന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ദൈനംദിന കാര്യമായിട്ട് അല്ലെങ്കിൽ ജീവിതരീതിയുടെ ഭാഗമായിട്ട് ജസ്റ്റ് അത്രയേ ഉള്ളൂ മറ്റ് പ്രൊഫഷണല്കാർക്ക് അങ്ങനെയല്ല അവർ ഈ പഠിക്കണതുകൊണ്ട് അവർക്ക് ഇത് ഒരു ഉപജീവന മാർഗമാണ് സത്യം പറഞ്ഞാൽ ഉപജീവനമാർഗം പോലെയാണ് ആ ഒരു അവർക്ക് മെഡൽ കിട്ടാനും അവർക്ക് പ്രൈസും കാര്യങ്ങളുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ തരത്തിലുള്ള നീന്തലും കാര്യങ്ങളുമൊക്കെ പഠിക്കണ് അപ്പോൾ അതിനനുസരിച്ച് അവർ അവർ എന്താണെന്നു വച്ചാൽ നീന്തലിൻ്റെ സ്വഭാവം കാര്യങ്ങളുമൊക്കെ മാറ്റും പിന്നെ ഞാൻ കുറച്ചുകൂടി നീന്താൻ ഇഷ്ടപ്പെടുന്നത് പുഴയിലാണ് എന്താണെന്നു വച്ചാൽ നമുക്ക് പുഴയിൽ പുഴവെള്ളമെന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും ഒഴുകണ വെള്ളമായതുകൊണ്ട് കൂടുതലും ശുദ്ധമായ വെള്ളമായിരിക്കും പിന്നെ കുളത്തിലെന്ന് പറയുമ്പോൾ സാദാ കെട്ടിക്കിടക്കണ കുളം ആയതുകൊണ്ട് അതിൽ നമുക്കൊരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിൽ നീന്തുമ്പോൾ അത്ര ആയാസം തോന്നില്ല പക്ഷേ നമ്മൾ പുഴയിലെ നീന്തുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ആ ഒരു ആയാസം ഉണ്ടാവും കാരണം നമ്മൾ പുഴേനെ എതിർത്ത് നീന്തുമ്പോൾ നമ്മളെ പുഴയുടെ ശക്തിനെക്കാട്ടിലും കൂടുതൽ ശക്തിയെടുത്ത് നീന്തണം അപ്പോൾ നമുക്ക് ബോഡിക്ക് കുറച്ചുകുടി പവറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് പുഴയിലൊക്കെ നീന്തുമ്പോഴാണ്